ആ എനിക്ക് നല്ല വിശേഷം നിനക്കെങ്ങനെയാണ് സുഖമാണോ

ആ പിന്നേ ഞാൻ ടി വി കണ്ടിരുന്നു ആ മെസ്സി കപ്പടിച്ചു അല്ലേ

കുഴപ്പമില്ല

പിന്നെങ്ങനെയാണ് മെസ്സിയുടെ കളി കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ ഒരു മുപ്പത്തി എത്രയാണ് മുപ്പത്തിയഞ്ചു വയസ്സോ എത്രയായി ഏജ് എംബാപ്പെയാണേലും സീൻ കളിയാണ് കേട്ടോ

ഓ ഹാട്രിക്ക് അടിച്ചു സീൻ കളി

ആ പിന്നെ എന്താണ് പിന്നെ പെനാൽട്ടിയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ അവർ കയറും എന്നു വിചാരിച്ചു ഫ്രാൻസേ മറ്റേത് ഷൂട്ട് ഔട്ടായപ്പോൾ നാട്ടിലൊക്കെ പരിപാടി ഇപ്പോൾ ഇങ്ങനെ പോകണു ഇനിയിവിടെ മൊത്തം ആഘോഷമല്ലേ അർജന്റീനക്കാർ ഇവിടെ നിന്ന് ഫാൻസ് ഇവിടെ നിന്നു പൊളിക്കുകയാണ്

ഇവിടെയൊക്കെ ഫുഡ്ഡോക്കെ ഫ്രീയായിട്ട് കൊടുക്കുന്നു എന്തൊക്കെയാണ് ആ ഫാൻസിൻ്റെ ആവേശം

ആ പിന്നെ എന്നാലും മെസ്സി ജയിച്ചാലും പിന്നെ റൊണാൾഡോയും നെയ്മറുമൊക്കെ പാവങ്ങൾ അവരെന്തൊക്കെ ഉണ്ട് എന്നാലും അവരങ്ങനെ കരഞ്ഞു പോയപ്പോൾ എന്തോപോലെ അതും ശരിയാണ് അടുത്ത തവണ അവർ ജയിക്കട്ടെയെന്ന് വിചാരിക്കാം അല്ലാണ്ടിപ്പോൾ എന്താ എന്തു ചെയ്യാനാണ്

പിന്നെ വീട്ടില്ലെങ്ങനെ സുഖമാണോ ഭാര്യയെന്തു പറയുന്നു എന്നാൽ ശരി ഡാ ഓക്കെ ഇല്ല ഇല്ല ഇല്ല ഓക്കെ